ആവശ്യമായ അധികം വാർത്തകൾ കിട്ടുന്നുണ്ട് പിന്നെ വേണ്ടാത്ത പല കാര്യങ്ങളും പത്രമാധ്യമങ്ങൾ ഉൾപ്പെടുന്നുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളും ഈ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല പിന്നെ വേണ്ടാത്തത് ഇപ്പം കൂടുതലായിട്ടും വരുന്നത് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും പിന്നെ മുതിർന്നവരുടെ കാര്യത്തിലാണെങ്കിലും ഒത്തിരിയേറെ കൊലപാതകങ്ങളെ പറ്റിയും ക്രൂരമായ മർദനങ്ങളെ പറ്റിയൊക്കെയാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ഇപ്പം പത്രമാധ്യമങ്ങളൊന്നും തുറന്നു നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ ഗുണഭോതാകൃതമായ രീതിയിലുള്ള ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ അതായത് നമ്മുടെ അറിവിന് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുമായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത് പിന്നെ വാർത്താ മാധ്യങ്ങളിൽ ഉണ്ടാവേണ്ടി ഇരുന്നിട്ടും ഇല്ലാതെ പോയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ പലർക്കും പല കാര്യങ്ങളിലും ഒത്തിരിയേറെ പ്രശസ്തി അല്ലെങ്കിൽ പ്രശസ്തികളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അതൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ജനറൽ നോളേജ് അതൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ വായിക്കുന്നവർക്ക് കുറിച്ചു അറിവൊക്കെ ലഭിക്കും പിന്നെ പിന്നെയും പിന്നെയും അറിവുകൾ നേടാനുള്ള ഒരു ഇത് ആളുകൾക്ക് ലഭിക്കും എന്നാൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ മർദനങ്ങൾ അങ്ങനെയൊക്ക വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് ന്യൂസൊന്നും വായിക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടത്തില്ല